ഞാൻ ഫോണിൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്നത് എങ്ങനെയാണെന്നുവച്ചാൽ നല്ലതെടുക്കാൻ വേണ്ടി കൂടുതലും ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലങ്ങൾ കണ്ട് പിടിക്കും അതൊക്കെ പോകുന്ന സൈഡിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കും അതൊരു വേറെ ലെവൽ തന്നെയാണ് പിന്നെ അതേ പോലെ തന്നെ നമ്മൾ നല്ല ലെൻസുള്ള ക്യാമറകൾ യൂസ് ചെയ്യും പിന്നെ നല്ല ലൈറ്റ് യൂസ് ചെയ്യും പിന്നെ നല്ല ബാക്ഗ്രൗണ്ട് നമ്മൾ തന്നെ ചിലപ്പോൾ സെറ്റ് ചെയ്യും ബാക്ഗ്രൗണ്ട് ഇല്ലാത്ത ആണ് സ്ഥലത്തെങ്കിൽ ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ കല്യാണ വീട്ടിലൊക്കെ ബാക്ഗ്രൗണ്ട് നമ്മൾ നോക്കിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കും റിസെപ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് നമ്മളായിരിക്കും ബാക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് ആകും പിന്നെ അവർ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിക്ക് എഡിറ്റ് ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ അതിൻറ്റിടക്കു നമ്മൾ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കും ബ്ലർ ഒക്കെ മാറ്റി കൊടുക്കും അങ്ങനെയാണിപ്പോൾ ചെയ്യുന്നത് ബാക്ഗ്രൗണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ പുഴ സൈഡ് അതുപോലെ ചില കാടിനുള്ളിൽ നല്ല മരങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് അങ്ങനങ്ങനെ പോയിട്ടാണ് ചെയ്യാറ്